കാലാവസ്ഥ വ്യതിയാനങ്ങളുള്ള ഒരു കൃഷിയാണ് നമ്മുടെ ഏലം ഏലക്കൃഷിയെന്നത് വേനൽക്കാലമായാൽ നല്ലവണ്ണം ചൂട് കൂടുമ്പോൾ ഇത് കൂടുതലായിട്ട് ഉണങ്ങിപ്പോവുകയും അതിൻ്റെ വിളവുകൾ കുറയുകയും അതിൻ്റെ തണ്ടുകളൊക്കെ ഉണങ്ങിപ്പോവുകയും അതിൻ്റെ കായ്കൾ വരുന്ന ശരങ്ങളൊക്കെയും ഉണങ്ങി അതിൻ്റെ മണ്ട കുത്തി പുഴുക്കളൊക്കെ വന്ന് നഷ്ടപ്പെട്ട് പോകുന്നൊരു അവസ്ഥയുണ്ട് അപ്പോൾ നല്ലതുപോലെ വെള്ളം കൊടുത്തിട്ട് നല്ല വളങ്ങള് കൊടുക്കാൻ മാത്രമാണ് സാധിക്കുന്നത് കാരണം വെള്ളമില്ലെങ്കിൽ അതിനെ ഒരു കീടങ്ങളും ഉപയോഗിക്കാൻ പറ്റില്ല അത് കാരണം വെള്ളത്തിൽ മാത്രമേ ആ കീടങ്ങൾ അവയിലേക്ക് പാകം ചെയ്ത് അത് സ്വീകരിക്കാനായിട്ട് കഴിയുകയുള്ളൂ വെള്ളമില്ലെങ്കിൽ വേനൽക്കാലങ്ങളിൽ കീടങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല കാരണം വെള്ളത്തിലാണ് ഇത് നിലനിന്നുപോകുന്നത് കാരണം അടിയിലേക്ക് ഒരുപാട് വേരുകളൊന്നുമില്ലാതെ മുകളിൽ മാത്രം വേര് പാകി വളരുന്ന ഒരു ചെടിയാണ് ഏലം ഏലത്തിൽ നിന്ന് നമ്മള് അനേകം വിളകൾ എടുക്കുന്നുണ്ടെങ്കിൽപ്പോലും അത് മണ്ണിന്റെ അടിയിലേക്ക് ആഴമായിട്ടൊന്നും വേരുകളൊന്നും പോകാത്തൊരു കൃഷിയാണ് ഏലക്കൃഷി അതിനകത്ത് നമുക്ക് വേനല്ക്കാലത്ത് കീടങ്ങളൊന്നും അധികമായി ചെയ്യാൻ പറ്റില്ല പിന്നെ മഴ കൂടുതലായി പെയ്താലും ഈ കൃഷിയെ അത് ബാധിക്കും കാരണം കൂടുതലായിട്ടും വെള്ളം ഇതിൻ്റെ ചുവട്ടിലേക്ക് തങ്ങുകയോ അതിനെ മൂടി നിൽക്കുകയുമൊക്കെ ചെയ്താല് അതിൻ്റെ ആ കിഴങ്ങുകളൊക്കെ ഒരു പഴുപ്പ് പോലെയുണ്ടായി അത് മഞ്ഞിച്ച് ആ ആ മൂട് പൂർണ്ണമായിട്ട് നശിച്ചുപോകുന്നു അതിനൊരു പേര് പറയാറുണ്ട് ചീയൽ എന്ന് പറയാറുണ്ട് അപ്പം ആ വിളകള് ഈ മഴ കൂടാനും പാടില്ല വെയില് കൂടാൻ പാടില്ല അപ്പം വെയിലും അത് ഒരു നോർമലായിരിക്കണം മഴയും ഒരു നോർമലായിരിക്കണം ഈ രണ്ട് കാലാവസ്ഥയും തരണം ചെയ്തു മാത്രമാണ് ഈ ഏലക്കൃഷി നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുകയുള്ളൂ അത് പിന്നെ കൂടുതൽ വെയില് വരുമ്പോൾ അതിനെ നമ്മള് ഈ മറകളൊക്കെ കെട്ടി അതായത് നെറ്റുകളൊക്കെ വലിച്ച് ഉയരങ്ങളിൽ കെട്ടി അതിന് തണലുകളൊക്കെ കൊടുത്ത് പിന്നെ അതിന്റെ ചുവട്ടിൽ ഒരു ഒരു കുറച്ച് അതിന് പിടിച്ചുനിൽക്കാൻ പറ്റുന്നതായ വെള്ളങ്ങളൊക്കെ കൊടുത്ത് അതിനെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് കാലാവസ്ഥ ഏത് രീതിയിൽ മാറുന്നുവോ ആ രീതിക്ക് അനുസൃതമായി നമ്മള് പ്രാവർത്തികമാക്കിയാൽ മാത്രമേ ഈ ചെടിയെ വളർത്തി നമുക്ക് നല്ല കൃഷിഫലം എടുക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് കാലാവസ്ഥയ്ക്ക് അനുസൃതമായ കീടങ്ങൾ മാത്രമേ അതിന് പ്രയോഗിക്കാനും പറ്റുകയുള്ളൂ അത് കാരണം വെള്ളം കൂടിയാൽ പ്രശ്നം വെള്ളം കുറഞ്ഞാൽ പ്രശ്നം വെയില് കൂടിയാൽ പ്രശ്നം വെയില് കുറഞ്ഞാൽ പ്രശ്നം വെയില് കുറഞ്ഞാൽ അതില് അനേകം ചിമ്പുകളൊക്കെ അടിച്ച് വളരുവാന് വേണ്ടി വെയിലില്ലായെങ്കിൽ സാധിക്കുകയില്ല തണല് കൂടുതലായാലും പറ്റില്ല അപ്പം കാലാവസ്ഥ വ്യതിയാനങ്ങൾ അനുസരിച്ച് മാത്രമേ കീടങ്ങൾ ഈ ഏലച്ചെടികൾക്ക് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ അതാണ് അതിനെ നമ്മള് കാലാവസ്ഥ വ്യതിയാനമായ കീടങ്ങൾ പ്രാവർത്തികമാക്കുന്ന ഒരു വിളയായിട്ട് കരുതുന്നത്